ആരാച്ചാർ ആണോ പക്ഷേ എനിക്ക് അത അത്യാവശ്യം ആയിരുന്നു അത് വായിച്ചതിന് ശേഷം ഒരസൈമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ആയിരുന്നു അപ്പം ഇനി എന്താ ചെയ്യുക അത് എന്താവാം അപ്പം എന്താപ്പം ചെയ്യുക എനിക്ക് അത് അത്യാവശ്യം എന്തേലും വേറെ വഴിയുണ്ടോ അത് ഓ ഓ ഓക്കെ ഓകെ ഓകെ ഓക്കെ ഓക്കേ ഓക്കേ അപ്പം കിട്ടിയാൽ തീർച്ചയായും അറിയിക്കണം അത്യാവശ്യമായത് കൊണ്ടാണ്

ഓ ഓക്കേ ഓക്കേ ഓ ശരി മേഡം താങ്ക് യൂ താങ്ക് യൂ